ഹലോ വിൽട്ടൺ റസ്റ്റോറൻ്റ് കൽപ്പറ്റ ആ ഓക്കെ ആ ഓക്കെ സാർ എത്ര പേരാണ് വരുന്നത് ഇരുപതുപേരാണോ എത്ര റൂം വേണം എന്നാണ് എങ്ങനെയാണ് കപ്പിൾസ് ആണോ ആ ഓക്കെ സാറേ ആ പത്ത് റൂം ഓക്കെ ഓക്കെ സാർ ഓ ഓ ഉണ്ട് സാർ ഉണ്ട് സാർ

ആ അതെ സാർ തീർച്ചയായും ആ ഓഫ്റോഡിൻ്റെ വണ്ടിയുണ്ട് സാർ പിന്നെ ഫുഡ് ഫുഡൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കണോ സാർ ഫുഡ് നിങ്ങൾ എങ്ങനത്തെ ഫുഡാണ് ഉദ്ദേശിക്കുന്നത് വെജ് സദ്യയുണ്ട് സാർ സദ്യ നൂറു രൂപയാണ് സദ്യേന്റെ കൂടെ അവിയലുണ്ടാവും പച്ചടി ഉണ്ടാവും കൂട്ടുകറി ഉണ്ടാവും രണ്ടുതരം പായസം ഉണ്ടാവും സാമ്പാർ ഉണ്ടാവും പുളിയിഞ്ചി ഉണ്ടാവും പപ്പടം ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും എല്ലാം ഉണ്ടാവും സാർ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ ആ പായസം ഉണ്ട് സാർ രണ്ടുതരം പായസം ഉണ്ട് പരിപ്പ് പായസവും ഉണ്ട് സേമിയ പായസവും ആ ഉണ്ട് സാർ മീൻ വറുത്ത ഫിഷ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കന്റെ പലതരം ഐറ്റംസ് ഉണ്ട് സാർ ആ ഉണ്ട് സാർ ഉണ്ട് സാർ കരിനഞ്ചും തൊടുവും എല്ലാം ഉണ്ട് സാർ നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ടുള്ളതാണ് നമ്മൾ പിന്നെ ചുട്ടുകൊടുക്കുന്നത് സാർ റൂമ് ഒരു ദിവസം നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ റേറ്റ് ഈടാക്കുന്നത് സർ എല്ലാ സെറ്റപ്പും ഉള്ള റൂമാണ് എ സി ഉണ്ട് ബാത്ത് റൂം ഉണ്ട് എല്ലാ സെറ്റപ്പും ഉള്ള റൂമാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളുള്ള റൂമുണ്ട് അങ്ങനെ വേണെങ്കിൽ അങ്ങനെ ടു തൗസൻഡ് സാർ ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ സാർ ആ എല്ലാം ഉണ്ട് സാർ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് സാർ ഓ ഉണ്ട് സാർ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് സാർ ഓക്കെ ഓക്കെ സാർ എന്നാൽ സാർ വിളി വരുമ്പോൾ ഒന്ന് വിളിച്ചാൽമതി സാർ താങ്ക് യൂ ഓക്കെ സാർ